ഇപ്പെൻ്റെ പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പം ഓരോ മുഖത്ത് തേക്കുന്ന ഇതാണെങ്കിലും ഓരോ സൺസ്ക്രീമിനെ കുറിച്ചാണെങ്കിലും അതായത് ഞങ്ങൾക്ക് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അതാണ് എൻ്റെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള സൺസ്ക്രീമിനാണ് എനിക്ക് അതിപ്പോൾ ലാക്മിൻ്റെ ഓരോ കമ്പനിയായിരിക്കും ഞാൻ ലാക്മിൻ്റെ ആണ് യൂസ് ചെയ്യുന്നാണെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഇതായിരിക്കും സൊ ദാറ്റ് ഈസ് ദ പോസിറ്റീവ് അത് ഗുഡ് ആണ്